ഹലോ ഞാൻ വിളിച്ചത് ആധാർ കാർഡ് ഒന്ന് ചെക്ക് ചെയ്യാനായിരുന്നു തോമസ് ഫിലിപ്പ് ആ ആണ് മറ്റേ ബാങ്കിലെ പെൻഷൻറെ മസ്റ്ററിങ്ങും ആധാർ ആധാർ കാർഡും ബാങ്കിൻറെ ഇത് ബാങ്കിൻറെ പാസ്ബുക്കും വേണം

എന്തിൻറെ

ഇതൊക്കെ ഡെയിലി കണക്കാണ് തിരക്കുണ്ടോ അവിടെ അല്ല നമുക്ക് സമയമില്ല നമ്മൾ വിദേ വിദേ വിദേശത്ത് നിന്ന് ഒരു മാസത്തെ അവധിക്ക് വന്നതാണ് പോകുന്നതിന് മുമ്പ് ശരിയാക്കിയിട്ട് പോകാനാണ് പാൻ കയറ്റിയോ തന്നെ കിട്ടുമോ ഇല്ലല്ലോ

ഇനി ഞാൻ തിങ്കളാഴ്ച്ച രാവിലെ വരാം നിങ്ങൾ ബുക്ക് ചെയ്ത് ഇട്ടേര് എൻ്റെ പേര് ആ ഓ